ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആയിട്ട് സമയം ചിലവിടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ വേറെ ആരും സഹായിക്കുകയൊന്നും ഇല്ല ഞാൻ തന്നെ ഒറ്റക്ക് എല്ലാ പണിയെടുക്കണം അപ്പം ഹസ്ബൻഡ് എണീറ്റിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ എണീക്കുമ്പോൾ എന്തായാലും ഹസ്ബൻഡ് എണീക്കില്ല ഞാൻ ഒരു ആറേമുക്കാൽ ഏഴ് മണിയാകുമ്പം എണീക്കും ഹസ്ബൻഡ് ഒരു ഏഴര ഏഴേ മുക്കാൽ ഒക്കെ ആകുമ്പം എണീക്കും അപ്പം നമുക്ക് ഓൺലൈൻ വർക്കാണ് നമ്മൾ രണ്ടുപേരും ഒരേ ജോബാണ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴര ഏഴേ മുക്കാൽ ഒക്കെ ആകുമ്പം എണീക്കും അപ്പോഴത്തേക്കും ഞാൻ ചോറിന് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടാകും എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടാക്കി അത് കുക്കറിൽ വെച്ചിട്ടുണ്ടാകും കടി എന്തെങ്കിലും ആകാൻ ഉള്ളത് നോക്കിയിട്ടുണ്ടാകും പൂരി ഒക്കെ ആകുമ്പം ഞാൻ അപ്പോൾ ഹസ്ബൻഡ് ഒന്നുല്ലേ പരത്തി തരും ഞാൻ അത് കോരി ഇടും അല്ലെങ്കിൽ ഞാൻ കോരി ഇടും ഹസ്ബൻഡ് പരത്തി തരും അങ്ങനെ ഒക്കെയാണ് അങ്ങനെ ഹസ്ബൻഡ് എല്ലാത്തരത്തിലും എനിക്ക് ഭയങ്കര ഹെല്പ് ആണ് അപ്പോൾ ഞങ്ങൾ നല്ല കഥകൾ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തമാശകൾ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടുക്കളയിൽ ഓരോ പണിയും ചെയ്യുക അതൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളാണ് അതേപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്ത് പണി എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ അടുക്കളയിൽ പോകും അമ്മേനോട് കുറെ കഥ പറയും ഇവിടുത്തെ കഥകൾ കുറേ പറയും അതിന് അമ്മേനെ എല്ലാം സഹായിച്ചു കൊടുക്കും നമ്മൾ കുറെ തമാശകളും കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ആണെങ്കിലും അടുക്കള അടുക്കളയിലത്തെ സമയം ചിലവിടാറ്